കോട്ടയം ജില്ലയിൽ നവോദയ സ്കൂൾ പ്രവർത്തിച്ച് വരുന്നുണ്ട് അവിടെ കുട്ടികൾക്കെല്ലാം സൗജന്യമായ താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലക്കത് വളരെ ഗുണം ചെയ്യുന്നു പഠനാവസരങ്ങൾ പിന്നെ വികസിതമായ കാര്യങ്ങൾ എല്ലാം ഈ സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രാദേശികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ എൽ പി യൂ പി ഹൈ സ്കൂൾ വിഭാഗങ്ങളിലെല്ലാം നല്ല വിദ്യാഭ്യസവും നല്ല സൗകര്യങ്ങളും വിദ്യാർഥികൾക്ക് വീട്ടിൽ പോയിറങ്ങാനുള്ള ബസ് സൗകാര്യം പോലും സ്വന്തമായിട്ടുള്ള സ്കൂളുകളാണ് നമ്മുടെ ഇവിടെ അടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഉള്ളത് പിന്നെ ഇവിടെ പാലായിൽ കോച്ചിങ് സെൻറ്ററുണ്ട് ബ്രില്ലിയൻറ്റ് കോച്ചിങ് സെൻറ്റർ ഇവിടെ നിന്നും നല്ല സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പിന്നെ അദ്ധ്യാപകൻ പിന്നെ ഡോക്ടർമാരെയും എൻജിനീയർമാരെയും വളരെ പ്രശസ്തരായ ഉദ്യോഗസ്ഥരെ ഒക്കെ കടത്തി വിടുന്ന വലിയ കോച്ചിങ് സെൻറ്ററാണ് അതാണ് ബ്രില്ലിയൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര് സെൻ്റർ ഈ സെൻ്റർ ശിശു സംരക്ഷണ പ്രൈമറി എലിമെൻറ്ററി സ്കൂളുകൾ ഒക്കെ ഇവിടെ വളരെ കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തനം പുതിയ നൈപുണ്യ സെറ്റ് വികസിപ്പിക്കുന്ന അതിൻ്റെ പ്രവർത്തന മേഖലയിലാണ് എല്ലാ വർക്കേഴ്സും